എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എൻ്റെ അമ്മയുണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണി ആണ് ഈ ചിക്കൻ ബിരിയാണി നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ട് വീട്ടിൽ കുടുംബത്തോടൊപ്പം ഇരുന്ന് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം